എനിക്ക് ഒരു ഏട്ടനുണ്ട് ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസമെന്ന് പറയണത് ഇപ്പോൾ അവൻ പെട്ടെന്നുതന്നെ എല്ലാവരോടും കമ്പനിയാവും സംസാരിക്കും എല്ലാം ചെയ്യും ഞാനങ്ങനെ ആരോടും പെട്ടെന്ന് കമ്പനിയാവുക ഒന്നൂല്ല അപ്പോൾ ഒറ്റ നോട്ടത്തിലൊന്നും എനിക്കങ്ങനെ സംസാരിക്കാനൊന്നും ആരോടും തോന്നൂല ഒരു കംഫേർട്ടബിൾ ആയിരിക്കില്ല അങ്ങനെ സംസാരിക്കാനൊക്കെ പക്ഷെ എൻ്റെ ഏട്ടനെന്ന് പറഞ്ഞത് അവൻ ഒറ്റയ്ക്ക് തന്നെ അവരെ കണ്ട് സംസാരിച്ചു കമ്പനിയായി പെട്ടെന്നുതന്നെ അവരുമായിട്ട് അടുക്കും ഞാനങ്ങനെ ചെയ്യലില്ല നമ്മളിപ്പോൾ അവര് എന്തു തോന്നും അകൽച്ച തോന്നും നമുക്ക് പരിചയമില്ലാത്തവരോട് പെട്ടെന്ന് കണ്ട് സംസാരിക്കാനുള്ള ഒരിതില്ല അങ്ങനെ കുറേ വ്യത്യാസങ്ങളുണ്ട് അതില് അവനു തമ്മിലുള്ള സാമ്യതകളെന്ന് പറയണത് സാമ്യതകളെന്ന് പറയണത് ഞങ്ങള് ഏറെകുറെ കാണാൻ ഒരുപോലെയാണ് പിന്നെ അവനെ വച്ചു ഏട്ടനെ വച്ച് കുറച്ചു ഹൈറ്റ് കൂടുതലാണ് ഞാൻ അവൻ എന്നെ വച്ച് ഒരു വയസ്സിനു മൂത്തതാണ് പക്ഷേ അവനെക്കാട്ടിലും ഹൈറ്റ് കൂടുതലാണ് അവൻ കുറച്ച് തടിയുണ്ട് ഞാൻ തടി കുറച്ചു കുറവാണു മെലിഞ്ഞിട്ട് നീളം അങ്ങനെ ഹൈറ്റില്ലാണ്ട് ഏട്ടൻ എന്നെ വച്ച് ഒരു ഒരു അഞ്ച് സെന്റീമീറ്റർ പത്തു സെൻറ്റീമീറ്റർ കുറവായിരിക്കും പക്ഷേ എന്നെ വച്ച് കുറച്ചു തടിയുണ്ട് പിന്നെ വ്യത്യാസങ്ങളായിട്ട് അങ്ങനെ വേറൊന്നും ഇല്ല പിന്നെ ഞാനുമായിട്ട് സ്വഭാവത്തിൽ ചെറിയൊരു വ്യത്യാസമുള്ളത് അവൻ പെട്ടെന്ന് എല്ലാവരോടും കമ്പനിയായി സംസാരിക്കും എടപഴകുകയും ചെയ്യും ഞാനങ്ങനെ സംസാരിക്കൊട്ടും ചെയ്യില്ല ഒരു കുറച്ചു മൂടി ടൈപ്പ് ആണു ഞാൻ അവൻ ഭയങ്കര ആക്ടീവായിട്ട് എല്ലാവരോടും പെട്ടെന്ന് കമ്പനിയായി സംസാരിക്കുകയൊക്കെ ചെയ്യും അപ്പോൾ ഞങ്ങളെ ഫാമിലിലൊക്കെ എല്ലാവരും അതിനെക്കുറിച്ച് പറയാറുണ്ട് ഞാൻ ഇപ്പോഴും അവൻ സംസാരിക്കുന്നതൊക്കെ കണ്ട് പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്